എൻ്റെ പ്രദേശത്തെ പ്രധാനപ്പെട്ട കരകൗശല വസ്തുക്കള് എന്നു പറയുന്നത് മരങ്ങളുണ്ടാക്കു കൊണ്ടുണ്ടാക്കുന്ന കരകൗശലവസ്തുക്കളാണ് പണ്ടേ എനിക്ക് ഡിസൈനുകള് ഉപയോഗിച്ചിട്ടാണ് ഇവയുണ്ടാക്കുന്നത് അത് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ മണ്ണു കൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങളും പോട്ടുകളും അതേപോല്ലെത്തന്നെ മണ്ചട്ടികളും ഇവിടത്തെ പ്രത്യേകതയാണ് അതുകൊണ്ട് അതില് പാചകം ചെയ്ത ഭക്ഷണത്തിന് പ്രത്യേക രുചിയാണ് അതുപോലെ തന്നെ പോട്ടിൽ പെയിന്റ് ചെയ്ത് വരുന്ന വസ്തുക്കള് അത് കാണാന് തന്നെ വളരെ ഭംഗിയാണ് വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത ഡിസൈനുകളിലുമാണ് അത് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ നെറ്റിപ്പട്ടം ഉല്പാദനം അത് വേറൊരു കരകൗശലവസ്തുവാണ് അതും ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്